ഞങ്ങളുടെ പ്രദേശത്ത് വിദ്യാഭ്യാസരംഗങ്ങളിൽ സുപ്രധാനമായി കാഴ്ച വെക്കുന്ന കോളേജുകളിൽ ഒന്നാണ് സി ഇ ടി അഥവാ കോളേജ് ഓഫ് എൻജിനിയറിങ് തിരുവനന്തപുരം ഇവിടെ ധാരാളം വിദ്യാർത്ഥികൾ അതാ അതായത് എഞ്ചിനിയറിങ് മേഖലയിൽ വളരെ അധികം വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകമായി വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം നേട്ടങ്ങൾ കൈവരിച്ച വളരെ അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജ് കൂടിയാണ് സി ഇ ടി അഥവാ കോളേജ് ഓഫ് എഞ്ചിനിയറിങ് തിരുവനന്തപുരം എഞ്ചിനിയറിങ് മേഖലയിൽ തന്നെ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ച പല പ്രമുഖ വ്യ പ്രമുഖ വ്യക്തികൾ അതായത് ഇന്ന് സമൂഹത്തിന് ഉന്നതനിലയിലായിരിക്കുന്ന പല എഞ്ചിനിയർമാരും പഠിച്ചിറങ്ങിയ ഒരു കോളേജ് കൂടിയാണ് ഈ കോളേജ് ഓഫ് എഞ്ചിനിയറിങ് തിരുവനതപുരം അഡ്മിഷനു വേണ്ടി ഒരുപാട് കഠിന പ്രയത്നങ്ങൾ ചെയ്താണ് പല വിദ്യാർത്ഥികളും ഈ കോളേജിലെത്തിച്ചേരുന്നത് അതുകൊണ്ടു തന്നെ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ കോളേജിൽ ആയിരിക്കുന്നവർ അതോടൊപ്പം കേരള സർവ്വകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാര്യവട്ടം കോളേജും ഇതിനു സമീപപ്രദേശത്തായിത്തന്നെ ഉണ്ട് അവിടെയും ധാരാളം വിദ്യാർത്ഥികൾ ധാരാളം കോഴ്സുകളിലായി ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നു ബിരുദ ധാരികളായി പുറത്തിറങ്ങുന്നുണ്ട് ഈ രണ്ട് കോളേജുകളിലും സാംസ്കാരിക കല കായിക രംഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ച ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുമുണ്ട് സമൂഹത്തിനു മുതൽക്കൂട്ടാകുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന രണ്ടു വിദ്യാ രണ്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി തന്നെ ഇവയെ കണക്കാക്കാം അതോടൊപ്പം ധാരാളം വിദ്യാലയങ്ങളും ഇവയ്ക്ക് സമീപത്തായുണ്ട് കഴക്കൂട്ടം സൈനിക സ്കൂൾ അതോടൊപ്പം ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂൾ വിദ്യാഭ്യാസരംഗങ്ങളിൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ ഈ സ്കൂളുകൾ സഹായിക്കുന്നു